ഹലോ ഹലോ അതേ അതേ അതേ അതേ അതേ ആരാണ് വിളിക്കുന്നത് അതേ അതേ അതേ അതേ അതെ അതെ ആരാണ് വിളിക്കുന്നത് എന്തോ അതെ അതെ ഓണറ് തന്നെയാണ് ബെന്നി ആണ് ഫോൺ എടുത്തേക്കുന്നത് പറഞ്ഞോളു ആ പറഞ്ഞോളൂ ആ കേക്ക് ഉണ്ടല്ലോ സാറേ ഏത് കേക്ക് ആണ് വേണ്ടത് ഏതു സൈസ് ആണെന്ന് പറയാമോ നമുക്ക് ബർത്ത്ഡേയ്ക്ക് അങ്ങനെ വല്ലതും ആണോ അതോ അല്ലാതെ ആ ഉണ്ട് ഉണ്ട് സാറിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞാൽ മതി നമുക്ക് അത് തരാം ഉണ്ടാക്കി തരുന്നതാണെങ്കിൽ അത് തരാം ഇപ്പൊൾ ബർത്ത്ഡേ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ സമയം പറഞ്ഞാൽ മതി ആ സമയത്തിന് നമുക്ക് ആ ഒരു കിലോ കേക്കിന് ആയിരത്തി ഇരുന്നൂറാവും സാറേ അപ്പം അന്നേരം നമ്മൾ രണ്ട് നിലയിൽ ആയിട്ടുള്ള നല്ല കേക്കുകളാണ് നല്ല ഡിസൈൻ ചെയ്തു നല്ല കേക്കാണ് സാറിൻ്റെ ബർത്ത്ഡേയ്ക്ക് ആണോ കൊച്ചിൻ്റെ ബർത്ത്ഡേയ്ക്ക് ആണോ ആ ബർത്ത്ഡേയ്ക്ക് ആണ് അത് നല്ല ഡിസൈൻ അതിൽ കുറഞ്ഞത് ഉണ്ട് സാറിൻ്റെ എത്ര രൂപയ്ക്കുള്ളത് വേണമെന്ന് പറഞ്ഞാൽ മതി അത് അനുസരിച്ചു നമ്മൾ ഇവിടെത്തന്നെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കമ്പനി കേക്ക് വാങ്ങിച്ചു വയ്ക്കുന്ന കേക്കുകളും ഉണ്ട് ആ ഉണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ നമ്മൾ ഓൾറെഡി ഫങ്ങ്ഷനുള്ള കേക്കുകളൊക്കെ നമ്മൾ അന്നേരം തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്

ആ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് സാർ ആ അന്നേരം സാർ അത് ഈ സാറിൻ്റെ പേരും വീട്ടുപേരും കൂടെ ഒന്ന് പറയാമോ കുറിച്ചു വയ്ക്കാമായിരുന്നു ഫോൺ നമ്പര് ഇത് തന്നെയല്ലേ സാറിൻ്റെ നമ്പര് തന്നെയല്ലേ ഇത് ഓക്കെ സാറെ ഓക്കെ ഓക്കെ ഓക്കെ പൈസാ പൈസാ കൊടുത്തുവിടും അല്ലേ

നാലുമണി ആവുമ്പോഴത്തേക്കും ആ കുഴപ്പമില്ല നാല് മണിയാവുമ്പത്തേക്കും നമുക്ക് അത് വരാം കുഴപ്പം ഇല്ല അതിനുള്ള സമയം ഉണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സമയം നമുക്ക് ഇപ്പം വേസ്റ്റ് ആയിട്ട് പോകുന്നുള്ളു ബാക്കി അന്നേരം നമ്മൾ ഓർഡറ് കൊടുത്താൽ അത് ബേക്കറിയിൽ അത് ചെയ്യാൻ ചെയ്തു തുടങ്ങിക്കൊള്ളും പണിക്കാർ അത് ചെയ്തു തുടങ്ങിക്കോളും ആ ഓക്കെ ഓക്കേ വണ്ടി അവിടെ വരുന്നത് അല്ലേ വീട്ടിൽ വണ്ടി വരുമല്ലോ വണ്ടി വീട്ടിൽ എത്തുകയില്ലേ ആ എന്നാൽ ശരി ശരി ഞാൻ കൊടുത്തു വിട്ടോളാം കൊടുത്തു വിട്ടോളാം ഓക്കെ സാറെ താങ്ക് യു താങ്ക് യു